ഞാൻ ഹെഡ് ഫോണാണ് വാങ്ങിയത് ആമസോണിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല പ്രോഡക്റ്റാണ് നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ കൊണ്ട് നടക്കാനും നമുക്ക് സിംപിളാണ് കൊണ്ട് നടക്കാൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ലതാണ് പൈസ കുറവായിരുന്നു ഹെഡ് ഫോൺ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കളറിലാണ് അത് കിട്ടിയത് നല്ല സൗണ്ട് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സൗണ്ട് ഉണ്ട് ക്യാരി ചെയ്യാൻ നല്ലതാണ് ചാർജ് നന്നായി കയറിയാൽ കുറെ നേരം നിൽക്കുന്നുണ്ട് ഞാൻ ചാർജ് കുത്തുന്ന ഹെഡ് സെറ്റാണ് വാങ്ങിയത് നല്ല എനിക്ക് നല്ല ഇഷ്ടമായി അത്